ആ അയ്യോ അത് ഒരു അബദ്ധം പറ്റിയതാണ് മാഡം അതേ ഞങ്ങളുടെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു കുക്ക് ഉണ്ട് ആ പുള്ളിക്കാരൻ അത് ഇന്ന് വന്നില്ല അപ്പോൾ അവിടെ വേറെ ഒരാളാണ് ഉണ്ടാക്കി വച്ചത് ഒരു അബദ്ധം പറ്റി പോയതാണ് അത് ആ അതുകൊണ്ട് അങ്ങനെ പറ്റിയതാണ് കേട്ടോ ആ അത് ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നോക്കാം കേട്ടോ ഇനി ഇപ്പോൾ നീ നിങ്ങളെ നിങ്ങൾ ഇനി ഓർഡറ് തരണം നിങ്ങളുടെ നല്ല ഭക്ഷണം തന്നെ ഉണ്ടാക്കി തരാം ആ പഴയ ജോലിക്കാർ തന്നെ ഇപ്പം വന്നിട്ടുണ്ട് തിരിച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ നല്ല സാധനം തന്നെ ആ ഇപ്പോൾ അങ്ങനത്തെ ഫുഡ്ഡ് ഇപ്പോഴത്തെ ഫുഡ്ഡ് എല്ലാം നല്ല ഫുഡ്ഡാണ് അതുകൊണ്ട് കുഴപ്പം ഒന്നും ഇല്ല ആ നിങ്ങൾ കഴിഞ്ഞ മാസത്തെ ആയിരുന്നോ കഴിഞ്ഞ മാസം ആണോ ഇത് കൊണ്ട് പോയത് ആണോ ശരി ശരി ശരി ആ നിങ്ങൾ ആ ശരി ശരി ആ ഇനി ഇപ്പം എനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കാം കേട്ടോ ആ ആ നല്ല ഭക്ഷണം പിന്നെ നിങ്ങൾ ഇനി ഇവിടെ കാര്യം ഇനി ഇവിടെ ഓർഡറ് ചെയ്യണം കേട്ടോ ഓർഡറ് ചെയ്യുകയും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക ഒക്കെ ചെയ്യണം ആ ശരി ശരി ശരി ആ ശരി ശരി ശരി ശരി ആ എന്നാൽ ആയിക്കോട്ടെ ഓക്കെ